ആ തീർച്ചയായും വിശ്രമിക്കുന്ന സമയങ്ങളിൽ വിശ്രമിക്കാൻ ഞാൻ നക്ഷത്ര നിരീക്ഷണം ശരിക്കും നടത്താറുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു നല്ല ഒരു രസകരമായ ഒരു അനുഭവമായിരിക്കും കാരണം ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണിയാൽ തീരാ എണ്ണിയാൽ തീരാനാവാത്ത ഒരുപാട് നക്ഷത്രങ്ങളുടെ കൂട്ടമുണ്ടാകും അപ്പോൾ അതിലോട്ട് നോക്കിയിരിക്കണ സമയത്ത് തീർച്ചയായും നമുക്കൊരു എന്താ പറയുക പല പല ചിന്തകളും നല്ല നല്ല ചിന്തകളും ഓർമ്മകളും എല്ലാം വരുക അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറന്ന് പോകും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കണ സമയത്ത് നമ്മളതിൽ കുഞ്ഞുകുട്ടികളെ പോലെ ആകാശവും നക്ഷത്രങ്ങളെ എണ്ണിയും മറ്റും ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ വലുപ്പം നമ്മളെല്ലാം താരതമ്യം ചെയ്തും നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച്ചയാണ് എൻ്റെ വീട്ടിന് മേലെ ടെറസിന് മേലെ പോയിട്ട് ഞാൻ രാത്രി സമയങ്ങളിൽ പോയി നോക്കാറുണ്ട് നല്ല രസകരമായിട്ടുള്ള കാഴ്ച്ചകളാണ് കൂടുതലും ആകാശത്ത് പഠിക്കാൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് അറിയാനുമൊക്കെ നക്ഷത്രങ്ങളുടെ വലിപ്പവും മറ്റ് കാര്യങ്ങളും തിളക്കവും എല്ലാം ഇത് സഹായിക്കും